തീർച്ചയായിട്ടും ഉണ്ടാകുവാൻ ചാൻസസുണ്ട് അന്യഗ്രഹികളുടെ പ്രസൻസ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയണത് വളരെ വലുതാണ് അപ്പ അതിലൊരു ചെറിയ ഒരു എന്താ ഒരു പാർട്ടാണ് നമ്മുടെ ഈ എർത്ത് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങൾ പോലുള്ള എല്ലാത്തിലും ജീവൻ്റെ സാന്നിധ്യം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നാസ പോലുള്ള ഓരോ സഘടനകൾ എന്താ സ്പെയ്സിലേക്ക് റേഡിയോ സിഗ്നൽ അയച്ചിട്ട് എവിടെ നിന്നോ അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് ഒരു റേഡിയോ സിഗ്നലിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് എവിടെ ആർക്ക് ആയാലും മേയ് ബി അത് അന്യ ജീവി ഗ്രഹ ജീവികളിൽ നിന്നുള്ള റെസ്പോൺസ് ആയിരിക്കാം അത് അങ്ങനെയൊരു ഒരു രീതി പറയപ്പെടുന്നുണ്ട് അപ്പോൾ മേയ് ബി അത് ഏലിയൻസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം പിന്നെ പാൻസ്പേർമിയ പോലുള്ള തിയറികൾ പറയുന്നത് സ്പേയിസിൽ നിന്നാണ് എന്താ ജീവൻ്റെ ഉത്ഭവം സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ ജീവൻ്റെ ഒരു സീഡ് സ്പേസിൽ എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ ഈ സ്പേസിൽ ആണല്ലോ എർത്ത് ഉള്ളത് അപ്പോൾ എർത്തിൽ നിന്നാണ് നമ്മൾ ഉള്ളത് ജീവൻ്റെ സമയം അപ്പോൾ എർത്ത് പോലുള്ള ബാക്കി എല്ലാ ഗൃഹങ്ങളിലും ജീവൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ എന്തായാലും ചാൻസസ് ഉണ്ട് ഏലിയൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരുപാട് സൈന്റിസ്റ്റ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഏലിയൻസ് ഇല്ല എന്ന് ഒരാളുപോലും പറഞ്ഞിട്ടില്ല മറിച്ച് ഉണ്ട് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അതിനെ കുറിച്ചാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ഏലിയൻസ് ഏലിയൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്